ഈ തൊഴില് ഇത്ര രസകരമായിട്ട് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെയ്നായിട്ട് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇണ്ടാവില്ല കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മള് കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു തൊഴിലാളികളാണല്ലോ അപ്പം നമ്മക്കന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ടെൻഷൻ നമ്മക്കൊണ്ടാവൂല്ല പക്ഷെ പുറമെ ഉള്ളവർക്കതേ നമ്മുടെ വൈഫിനും കാര്യങ്ങൾക്കൊക്കെ ഭാര്യക്കൊക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതില് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണന്ന് വച്ച് കഴിഞ്ഞാല് അവര് നമ്മളെ പുറം കടലിലോട്ടക്കെ വിടുന്ന സമയത്ത് നമുക്കെന്തെങ്കിലും പറ്റിയാലോന്നക്കെ വിചാരിച്ചിട്ട് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും പക്ഷെ നമുക്കങ്ങനത്തെ വലിയ പ്രശനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളക്കെ ഇള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാ നമ്മുക്ക് ഇപ്പോൾ സുഹൃത്തുക്കളക്കെ ഉണ്ടെങ്കിൽ വലിയ രീതിലൊള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ അപ്പോൾ നമുക്ക് നല്ല എൻജോയ്മെന്റായിട്ട് പോയിട്ട് വരാനൊക്കെ പറ്റും ഇപ്പോൾ നമ്മുടെ മക്കളക്കെ ഈ ജോലി ചെയ്യണന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവർക്കേതാണോ താൽപ്പര്യം അത് ഏറ്റെടുക്കാനാണ് എനിക്ക് ഇഷ്ട്ടം എന്ന് വേണമെങ്കിൽ പറയാം